ഞാൻ നിങ്ങളുടെ ഹോട്ടലിലേക്ക് ഞാൻ ഡിന്നർ ഏർപ്പാടാക്കിയിട്ട് ഉണ്ടായിരുന്നു അതിൽ ഞാൻ ഓർഡർ ചെയ്തതു കൂടാതെ എനിക്ക് കുറച്ചു കൂടി സാധനങ്ങൾ ആവശ്യമുണ്ട് എന്തെന്ന് എന്തൊക്കെ എന്നാൽ സോസുകൾ ചട്നി പനീർ ബട്ടർ ചിക്കൻ സിക്സ്റ്റി ഫൈവ് എന്നിവ എന്നീ സാധനങ്ങൾ കൂടി ഞാൻ തന്ന ഓർഡറിൽ പെടുത്തണം മാത്രമല്ല അതിൻ്റെ എല്ലാം വില എനിക്ക് ഒന്ന് പറഞ്ഞു തരികയെങ്കിൽ വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ ഗൂഗിൾ പേ ചെയ്യാം നിങ്ങളുടെ സാധനങ്ങൾ നല്ലതായിരിക്കുക നല്ലതാണെങ്കിൽ ഇനിയുള്ള ഓർഡറുകൾ നിങ്ങൾക്ക് തന്നെ തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ സേവനം നല്ല രീതിയിലാണെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് നല്ല സർവീസാണ് നല്ലത് നല്ല ഭക്ഷണം ആയതുകൊണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങളുടെ റസ്റ്റോറന്റിൻ്റെ പേര് പറഞ്ഞുകൊടുക്കാനായിട്ട് പോവുകയാണ്